പൗരന്മാരെ സംരക്ഷിക്കുന്നതും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതൊക്കെ നിയമങ്ങളാണ് എങ്കിൽ കൂടി അത് അതിൻ്റെതായ രീതിയിൽ വേണ്ടത് പോലെ പ്രാബല്യത്തിൽ വരുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയെ ഒരു നോട്ടം കൊണ്ട് നോ ഒരു നോട്ടം കൊണ്ട് തന്നെ അവളെ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അതിനെ ചോദ്യം ചോദ്യം ചെയ്യാൻ ഒത്തിരി അധികം ആൾക്കാർ മുന്നോട്ട് വരും അതുപോലെ തന്നെ അതിന് അതിൻ്റെതായ ഒരുപാട് നിയമ വശങ്ങളും ഉണ്ട് പക്ഷേ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം നിശബ്ദമായിരിക്കുന്നു കാരണം അവർക്ക് അവർക്കു വേണ്ട രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി കിട്ടുന്നില്ല സമൂഹത്തിൽ അതുപോലെ തന്നെ ഇവർ വളർന്ന് വരുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ് സമൂഹത്തിൽ സമാധാനത്തിൻ്റെ അളവ് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ വളർന്ന് വരുന്നതെന്ന് ആദ്യം വീടുകളിൽ നിന്ന് പിന്നെ സ്കൂളുകളിൽ നിന്ന് അതിന് ശേഷം നമ്മളത് സമൂഹത്തിലിറങ്ങി പെരുമാറുകയാണ് ചെയ്യുന്നത് ആദ്യ പാഠം സമൂഹത്തിൽ നമ്മളെങ്ങനെ വളരണം സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബഹുമാനിക്കാൻ പഠിക്കണം എങ്ങനെ ഓരോന്നിനെയും അതിൻ്റെതായ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിക്കണമെന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് തന്നെയാണ് വീടാണ് ഏറ്റവും ആദ്യത്തെ വിദ്യാലയം അമ്മയും അച്ഛനുമാണ് ഏറ്റവും ആദ്യത്തെ ഗുരുക്കന്മാരും അവർ പറയുന്നത് അനുസരിച്ച് വീട്ടിൽ നിന്ന് വേണ്ടതായ രീതിയിൽ അതിനുള്ള ശിക്ഷണം നൽകി അതിനു ശേഷം കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുകയാണെങ്കിൽ അവിടെ നിന്നും അത്തരത്തിലുള്ള നല്ല ഗുണ പാഠം ക്ലാസ്സുകളും നൽകി അച്ചടക്കം പാലിക്കാനുള്ള എല്ലാ രീതികളും അവിടെയും കൊണ്ട് വന്ന് പിന്നെ ശേഷം കുട്ടികളെ വള കുട്ടികൾ വളർന്ന് വരും തോറും അതിൻ്റെതായ രീതിയിലുള്ള ക്ലാസ്സുകൾ നൽകി കൊണ്ട് വരുകയാണെങ്കിൽ കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇപ്പോഴതില്ല എന്നല്ല പക്ഷേ ഒട്ടും എഫക്റ്റീവല്ലത് നമ്മൾ ഓരോ വിഷയം പഠിക്കുന്നത് പോലെ തന്നെ അതും വേണമെങ്കിലൊരു വിഷയമായ് തന്നെ കൊണ്ട് വന്ന് അതിനെ നേരിടുകയാണെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിൽ ഇതിൽ കൂടുതൽ രീതിയിലുള്ള സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു രാജ്യത്തിപ്പോൾ ഒത്തിരി രീതിയിലുള്ള കുറ്റങ്ങളാണ് നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള കുറ്റങ്ങളാണ് ഓരോരുത്തരും ചെയ്ത് വരുന്നത് ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഞാനീ പറയുന്ന രീതിയിൽ തന്നെയാണ് കാരണം കുട്ടികളാണ് വരും തലമുറ കുട്ടികളെ ഏത് രീതിയിലാണോ നമ്മൾ വളർത്തുന്നത് അവരാ രീതിയിൽ ബാക്കിയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ അളവുകൾ കുറയുന്നത് സ്വാഭാവികമാണ് ഇന്ന് അതുപോലത്തെ കുട്ടികൾ വളർന്ന് വരുന്ന സാഹചര്യം നല്ലതാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു സാഹചര്യത്തിനെ മാറ്റി നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും പരൻസിൻ്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെക്കെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഓരോ സമൂഹജീവിയുടെയും ഉത്തരവാദിത്വമാണ് കുട്ടികളെ വളർത്തുക എന്നതുള്ളത് അത് നമ്മൾ തന്നെ ഇത് ഈ പറയുന്ന സമൂഹം തന്നെ അത് ആദ്യമേ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള സമാധാന ക്രമക്കേടുകൾ ഉണ്ടാവത്തില്ല കുറ്റ കൃത്യങ്ങളും ഉണ്ടാവത്തില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പൗരന്മാർ അല്ലെങ്കിൽ പൗരന്മാർ ആരെ വേണമെങ്കിലും സംരക്ഷണത്തിൻ്റെ കാര്യം അത് രണ്ട് പേർക്കും തുല്യ അവകാശം കൊടുത്ത് കൊണ്ടുള്ള നിയമങ്ങൾ വരണം തുല്യ അവകാശം രണ്ട് പേർക്കും നൽകുക അതുപോലെ തുല്യമായിട്ട് രണ്ട് ആൾക്കാരുടെയും രണ്ടാൾക്കാർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക അതുപോലെ നല്ല രീതിയിൽ ഉള്ള നല്ല അന്തരീക്ഷം കുട്ടികൾക്കായിട്ട് ഒരുക്കി കൊടുക്കുന്നതിലൂടെ നമുക്ക് വലു വലുതാകുന്തോറും സമൂഹം അല്ലെങ്കിലി കുറച്ച് നാളുകൾ കൂടിക്കഴിയുമ്പോൾ സമൂഹത്തിൻ്റെ ഇപ്പോൾ പോകുന്ന ആ ഒരു ഗതി മാറ്റി അതിനെ വഴിതിരിച്ച് നല്ല രീതിയിലേക്ക് മാറ്റി കൊണ്ട് വരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്